ഹലോ റെയിൻബോ ട്രാവലേജൻസി അല്ലേ ഞാനും എൻ്റെ കുടുബമായിട്ട് ഒരു എന്താണ് മൂന്നാർക്ക് പോവാൻ വേണ്ടി ഒരു ഇന്നോവ സെവൻ സീറ്റര് ബുക്ക് ചെയ്തിരുന്നു പക്ഷെ അദ്ദേഹം ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല ഞാൻ അദ്ദേഹത്തിനെ വിളിക്കാൻ ശ്രമിച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ കോളും അദ്ദേഹം സ്വീകരിക്കുന്നില്ല ഇത് നിങ്ങളുടെ കമ്പനിയില് ഞാൻ ഒരാഴ്ചമുമ്പ് വന്ന് ബുക്ക് ചെയ്ത വണ്ടിയാണ് പക്ഷെ ഞങ്ങളുടെ സമയം പോവുന്നു ഞങ്ങളുടെ അവധിക്കാലം ആഘോഷിക്കാനുള്ള രണ്ട് ദിവസമാണ് ഇനിയിപ്പോള് ഇവിടെനിന്ന് പോയിക്കഴിഞ്ഞാൽ മൂന്നാറിന് എപ്പോള് എത്തുമെന്നോ ഞങ്ങളുടെ പരിപാടികൾ നടക്കുമെന്നോ അറിയത്തില്ല കമ്പനിയുടെ ഭാഗത്തുനിന്ന് എന്ത് നീക്കുപോക്കാണ് എന്ത് നടപടിയാണ് ഇത് നടക്കുന്നെ ഞങ്ങള്ക്ക് നഷ്ടപരിഹാരമായിട്ട് തരുമോ അതോ ഞങ്ങള്ക്ക് എന്താണ് കമ്പനി ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ